ലഘുഭക്ഷണങ്ങൾ വൈകുന്നേരം ചായക്കുള്ള കടിയായിട്ട് പഴംപൊരി പിന്നെ മുറുക്ക് തുക്കടി ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മക്കൾക്ക് ഈ ലഘുഭക്ഷണങ്ങളിൽ ഏറ്റവും ഇഷ്ടം പഴംപൊരിയാണ് അപ്പം ഞാൻ ആദ്യം തന്നെ പഴംപൊരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാം ആദ്യം ഒരു പാത്രത്തിൽ പഴം പൊരിക്ക് വേണ്ട മൈദ എടുക്കാം അതിലേക്ക് ഒന്നോ രണ്ടോ മുട്ട പൊട്ടിച്ചൊഴിച്ച് പിന്നെ ലേശം ഉപ്പും ലേശം പഞ്ചസാരയും ഇട്ട് വെള്ളവും ഒഴിച്ച് മാവുണ്ടാക്കുക പഴംപൊരിക്കുള്ള മാവുണ്ടാക്കുക പിന്നെ നല്ല നേന്ത്ര പഴുത്ത നേന്ത്ര പഴം എടുത്ത് നല്ല സ്ലയിസ് മെലിഞ്ഞ സ്ലയിസ് ആക്കി മുറിച്ചെടുക്കുക അടുപ്പിൽ അടുപ്പിൽ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാവാൻ വയ്ക്കാം അതിലേക്ക് ഈ മാവ് പഴംപൊരി മെലി അല്ല സോറി പഴം മുറിച്ച പഴം ഈ മാവിൽ മുക്കി എണ്ണ ചൂടായപ്പോൾ അതിലിട്ട് പൊരിച്ചെടുക്കുക ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ പഴംപൊരി എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ മിക്ക ദിവസങ്ങളിലും അവർക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പിന്നെ ലീവ് ഉള്ള ദിവസങ്ങളിൽ മുറുക്ക് ഉണ്ടാക്കാൻ അരിമുറുക്ക് ഉണ്ടാക്കാറുണ്ട് അരി മുറുക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഉഴുന്ന് കുതിർത്തി അത് മിക്സിയിലിട്ട് അരച്ച് അതിലേക്ക് അരിപ്പൊടി മിക്സ് ആക്കി നല്ല ഒരു ചപ്പാത്തിയുടെ പരുവത്തിൽ കട്ടി ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ചെടുത്ത് ആ മാവിലേക്ക് ന എണ്ണ ഒന്നുചൂ ലേശം എണ്ണ ചൂടാക്കി ഒഴിച്ച് അതും കൂടി മിക്സ് ചെയ്ത് പിന്നെ നമ്മുടെ മുറുക്കിൻ്റെ മുറുക്കിൻ്റെ അച്ചിൽ മുറുക്കിൻ്റെ മുറുക്ക് ഉണ്ടാക്കുന്ന ആ പാത്രമില്ലേ അതിലിട്ട് മാവ് നിറച്ച് അച്ചിലുണ്ടാക്കി എണ്ണ ചൂടാവുമ്പോൾ മുറുക്കുണ്ടാക്കി മുറുക്കിൻ്റെ മുറുക്കുണ്ടാക്കി അതിൽ ചുട്ടെടുക്കണം ഇങ്ങനെയാണ് മുറുക്കുണ്ടാക്കാറ് പിന്നെ ആറാം നമ്പർ അതായത് തുക്കടി നമ്മുടെ കാസർഗോഡ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ തുക്കടി എന്ന് പറയും തുക്കടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മൈദ എടുത്ത് അതിലേക്ക് ലേശം ഉപ്പും ഒരു ലേശം ടേസ്റ്റിന് ലേശം ഒരു പഞ്ചസാരയുമിട്ട് കുഴച്ച് നല്ല ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ചെടുത്തതിന് ശേഷം അതൊന്ന് പരത്തി അതിനെ ഒരു പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ ആറു മൂല വരുന്ന പോലെ കട്ട് ചെയ്യുക നീളത്തിലിങ്ങനെ കട്ട് ചെയ്ത് പിന്നെ വീണ്ടും വിഡ്ത്തിൽ കട്ട് ചെയ്ത് അത് എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കണം അങ്ങനെയാണ് മുറുക്ക് ഉണ്ടാക്കാറ് ഈ മൂന്ന് ലഘുഭക്ഷണങ്ങളും ഞാൻ ഇടക്കിടക്ക് ഉണ്ടാക്കാറും അത് മക്കൾക്ക് സ്കൂളിൽനിന്ന് വരുമ്പോൾ കൊടുക്കുകയും പതിവാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ പിന്നെ മുറുക്ക് മുറുക്കുണ്ടാക്കാൻ കുറേ സമയെടുക്കാറ് എടുക്കുന്നതുകൊണ്ട് അധികം ദിവസങ്ങളിൽ മുറുക്ക് ഉണ്ടാക്കാൻ പറ്റാറില്ല അത് നല്ല ഒഴിവുള്ള സമയങ്ങളിൽ മുറുക്കുണ്ടാക്കാൻ ട്രൈ ചെയ്യാറുണ്ട് പെട്ടെന്ന് ആവുകയാണെങ്കിൽ ഞാൻ അധികം പഴം പൊരിയാണ് ഉണ്ടാക്കാറ് പഴംപൊരി ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കഴിയുകയും അത് പെട്ടെന്ന് തന്നെ മക്കൾക്ക് അത് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് വയർ പെട്ടെന്ന് അവർക്ക് അവരെ വിശപ്പ് ശമിക്കാനുള്ള ഒരു ഭക്ഷണമാണ് പഴംപൊരി അതുപോലെ തന്നെ അത് അതിൽ വേറെ ഒരു മിക്സും ഇല്ലാത്തത് കൊണ്ട് ഹെൽത്തിനും വളരെ നല്ലതാണത് അതുപോലെ തന്നെ ഞാനധികം ബേക്കറി സാധനങ്ങൾ ഒന്നും വാങ്ങാറില്ല വീട്ടിൽ തന്നെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് മക്കൾക്ക് കൊടുക്കാറ് അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ഹെൽത്തിൽ വളരെ നല്ല ഹെൽത്ത് ആണ് അവർക്ക് അസുഖങ്ങൾ ഒന്നും അങ്ങനെ പെട്ടെന്ന് ഒന്നും വരാറില്ല അതായത് ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന ഭക്ഷണങ്ങളിൽ എന്നു പറഞ്ഞാൽ അവർ എങ്ങനെയുള്ള എണ്ണയാണ് യൂസ് ആക്കുക ആണ് എന്ത് ഒന്നും അറിയില്ല നമ്മളാണെങ്കിൽ പ്യൂർ എണ്ണ ഞാനധികം തേങ്ങ എണ്ണയാണ് യൂസ് ചെയ്യാറുള്ളത് അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കൊപ്ര മില്ലിൽ കൊടുത്ത് ആട്ടി കൊണ്ടുവന്ന തേങ്ങ തന്നെ യൂസ് ചെയ്താണ് അധികവും ഭക്ഷണം പാച പാചകം ചെയ്യുന്നത് അപ്പം അതിൽ ഒരു മായവും ഇല്ലാത്തതുകൊണ്ട് വിശ്വസിച്ച് നമുക്ക് മക്കൾക്ക് കഴിക്കാൻ കൊടുക്കാൻ പ കൊടുക്കാവുന്നതാണ് ഇതൊക്കെ